എനിക്ക് കൂടുതൽ ഭാഷകളൊന്നും അറിഞ്ഞുകൂട പിന്നെ മലയാളവും തമിഴും ഇംഗ്ലീഷും ഹിന്ദിയാണ് അറിയാവുന്ന ഭാഷകൾ പിന്നെ മലയാളത്തിനെ വച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമാണ് കാരണം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളായിരുന്നാലും വളരെ അധികം കുറവാണ് ചിഹ്നങ്ങൾ ആയിരുന്നാലും കുറവാണ് തമിഴൊക്കെയാണെങ്കിൽ അക്ഷരങ്ങളോട് ചേർത്ത് തന്നെയാണ് ചിഹ്നങ്ങളും വരുന്നത് പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ആകെ ഇരുപത്താറ് അക്ഷരം പഠിച്ചാൽ മതി പിന്നെ ഹിന്ദിയാണെങ്കിലും കുഴപ്പം ഇല്ല അതിലും ചിഹ്നങ്ങൾ അക്ഷരങ്ങളോട് ചേർത്ത് തന്നെയാണ് എഴുതുന്നത് പക്ഷെ മലയാളത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല മലയാളത്തിൽ സ്വരാക്ഷരമെന്നും വ്യഞ്ജനാക്ഷരമെന്നും കൂട്ടക്ഷരം ചില്ലക്ഷരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമെ അത് എഴുതാൻ പഠിക്കാനും പിന്നെ വായിക്കാനായിരിന്നാലും ഒക്കെ പറ്റുവൊള്ളൂ പിന്നെ മലയാളത്തിലെ അക്ഷരങ്ങളും അങ്ങനെ തന്നെ നല്ല നാവ് വഴങ്ങി വരുന്നവർക്ക് മാത്രമേ മലയാളം നന്നായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ഭാഷകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പം ഇല്ല നമുക്ക് അങ് പറഞ്ഞ് പോവാം പക്ഷെ മലയാളത്തിലെ ഴായും അങ്ങനെ ഉള്ള അക്ഷരങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും അങ്ങനെത്തന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പല അക്ഷരങ്ങളും മാറിപ്പോവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പിന്നെ എഴുതി പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ചേർത്ത് എഴുതാൻ പറയുമ്പോൾ അവർക്കും ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും അത്രേം പഠിക്കണമല്ലോ എന്ന് കാരണം അവർ ആദ്യമേ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണല്ലൊ പിന്നെ മലയാളം പഠിക്കുന്നത് പണ്ടത്തെപ്പോലെ മലയാളം കഴിഞ്ഞതിന് ശേഷം അല്ലല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് അത്കൊണ്ട് പിന്നെ എന്നാലും കുഴപ്പം ഇല്ല എപ്പഴും കുട്ടികളൊക്കെ പഠിച്ചെടുക്കും പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഭാഷ മലയാളം തന്നെയാണ് കാരണം നമ്മൾ അതാണല്ലോ പഠിച്ച് വരുന്നത് അതുകൊണ്ട്